എന്നെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം അബ്ദുൾ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ ആണ് അത് ജീവിതത്തിൻ്റെ ഒരു മുതൽകൂട്ടായിട്ട് തന്നെ വേണം പറയാൻ പഠിക്കുന്ന സാഹചര്യത്തിലും പഠിപ്പിക്കുന്ന സാഹചര്യത്തിലും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ദ വിങ്സ് ഓഫ് ഫയർ അതായത് അതെന്ന് പറയുന്നത് സയൻസ്പരമായിട്ടും മുന്നേറിയ ഒര് വ്യക്തിയാണ് അറിവിൻ്റെ മേഖലയില് ആ ഔന്നത്യം പ്രാപിച്ച വ്യക്തിയാണ് എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉന്നം വയ്ക്കുന്നത് ജീവിതത്തിൻ്റെ മേഖലകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ലക്ഷ്യം വയ്ക്കുന്നത് എയിം ജീവിതത്തിന് നല്ലയൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മൾ ഉന്നത ഉയരങ്ങളിൽ അയക്കു നമ്മടെ ചിന്തകളെ വിടണം എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്തകൾ ഉയർന്നതാണെങ്കിൽ മാത്രമെ നമുക്ക് ഈ ലോകത്തെ എന്തെങ്കിലും രീതിയിൽ മാറ്റി മറിക്കുവാൻ സാധിക്കു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അങ്ങനെ ആയിരുന്നു അദ്ദേഹം ഈ ലോകത്തിന് സംഭാവന ചെയ്തത് തൻ്റെ ആ കഴിവുകളായിരുന്നു ജീവിതത്തിൻ്റെ മുതൽകൂട്ടായിരുന്നു ദാരിദ്ര്യത്തിൽ നിന്നും മുന്നോട്ട് കുതിച്ചുയർന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പോലെയാകാൻ കുഞ്ഞുങ്ങൾ ശ്രമിച്ചാൽ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കും വ്യക്തി വളർന്നാലേ സമൂഹം നന്നാവൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ വ്യക്തി സ്വാധീനിക്കുന്ന രീതിയിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ വാക്കുകളാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ ലോകർക്ക് പറഞ്ഞുതരുന്നത് നമ്മളത് വായിച്ചാല് വീണ്ടും വീണ്ടും വായിക്കുവാൻ നമുക്ക് തോന്നും ചില പുസ്തകങ്ങളും മാധ്യമങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മൾ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആ പുസ്തകത്തിലൂടെ പുതിയൊരു ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ നമക്ക് സാധിക്കും അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി വെച്ച വാക്കുകള് ഇന്നും ലോകത്തിനൊരു മുതൽക്കൂട്ടായിട്ടാണ് നിലകൊള്ളുന്നെ അങ്ങനെ നമ്മൾ വായനയിൽ മുന്നോട്ട് വരുവാൻ നമ്മളെ സഹായിക്കുന്ന പല പല പുസ്തകങ്ങൾ ഇതുപോലെ അനേകം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറികളിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒക്കെ ധാരാളമായി കാണുവാൻ സാധിക്കും അതിന് കിട്ടുന്ന അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻവേണ്ടി നമ്മൾ ശ്രമിക്കയാണെങ്കിൽ ഇന്നത്തെ മുതിർന്നുവരുന്ന കുഞ്ഞുങ്ങൾ അവലു നല്ല ഭാവിയെ മുന്നിൽകണ്ടുകൊണ്ട് ജീവിക്കുവാൻ അവർക്ക് സാധിക്കും അങ്ങനെ വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മള് കഴിവതും നമ്മൾ ശ്രമിക്കയാണെങ്കിൽ വായനയിലൂടെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുവാൻ സാധിക്കും കുഞ്ഞുണ്ണി മാഷ് പോലും പറയുന്നുണ്ട് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് അത് അങ്ങനെ ആയി വരാനായിട്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ സയൻസാ ശാസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യപരമായ മാറ്റങ്ങളാണെങ്കിലും എല്ലാം നല്ല ചിന്താഗതികളുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ നമ്മളെക്കൊണ്ട് ആവുംവിധം നമക്ക് ശ്രമിക്കാം അങ്ങനെ ലോകത്തിൻ്റെ തെറ്റായ രീതികളെ ചിന്താഗതികളെ മാറ്റി നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കും ഇത് പുസ്തകമെന്ന മാധ്യമം ഏറ്റവും അതിന് അനുയോജ്യമാണ് അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം